ആരോഗ്യമുള്ളൊരു മൃഗം നല്ല രീതിയിൽ വെള്ളം കുടിക്കും ഭക്ഷണം കഴിക്കും അത് വീടെരക്കും

എപ്പോഴും കിടക്കത്തില്ല ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ അതിന്റെ ശരീരത്തിനൊക്കെ നമ്മള് എപ്പോഴുമൊന്ന് തടവി നോക്കണം അതിനസുഖങ്ങള് വല്ലതും ഉണ്ടോന്ന് അങ്ങനെ തടവിനോക്കുമ്പോള്ത്തന്നെ അറിയാം അതിനെന്തെങ്കിലും അസുഖമുണ്ടെങ്കില് വീണ്ടെരക്കത്തില്ല അങ്ങു തളര്ന്ന് തളര്ന്നു കിടക്കും അങ്ങനെ തളര്ന്ന് തളര്ന്ന് കിടക്കാതേെയും വീണ്ടരക്കാതേെയും നല്ല രീതിയിൽ ചാടുകയും ഓടുകയുമൊക്കെ ചെയ്യുന്ന പശുക്കളാണ് അല്ലേ അങ്ങനുള്ള മൃഗങ്ങളാണ് അസുഖമില്ലാത്ത മൃഗങ്ങൾ അങ്ങനെയാണ് മൃഗങ്ങളെ തിരിച്ചറിയുന്നത് ആരുടെ ആരുടെും ഉപദേശം നോക്കാതെ ഞാൻ തന്നെയാണ് എന്റെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് പട്ടിയുണ്ട് പൂച്ചയുണ്ട് ആടുണ്ട് പശു ഉണ്ട് ഇതിങ്ങനെ ഇത്രേ എണ്ണത്തിനെ ഒരു അസുഖവും ഇല്ലാന്ന് കണ്ട് ഞാൻ തന്നെ അതിനെ നോക്കുന്നുണ്ട് ഇതുവരെ അസുഖങ്ങളൊന്നുമുണ്ടായിട്ടില്ല ഇത്രയും